ആ ഹലോ ആ അതെ അതെ ആ അതെ അതെ അത് തന്നെ ആ ടീച്ചർ മിനിഞ്ഞാന്ന് വിളിച്ച ആ ടീച്ചർ അല്ലേ അത് ടീച്ചറെ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ഇത്രയും പിള്ളേർ ഒരുമിച്ചെന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നത്തേക്കാ വേണ്ടത് ആ ഒരു മാസത്തിനുള്ളിലൊക്കെ ഞങ്ങൾക്ക് ശരിയാക്കാം കുഴപ്പം ഒന്നും ഇല്ല മൊത്തം ടോട്ടൽ എത്ര പിള്ളേരുണ്ട് ടീച്ചറെ ആ ആ ആ ഓക്കെ അപ്പം ടീച്ചറെ എന്നാൽ ഇത് തരേണ്ടിവരും കേട്ടോ കുറച്ച് ക്യാഷ് മ്മ് ആ വരും വരും വരും എന്നത്തേക്കാ വരേണ്ടത് മെഷർമെൻറ്റ് എടുക്കാനായി സ്കൂളി അന്നേരം ടീച്ചർ അവിടെ കാണുമോ ഓ അങ്ങനെ ആ അപ്പോൾ ഇപ്പം എനിക്ക് കുറച്ച് ബിസി ആണ് ഞാൻ അടുത്ത രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം വരാം കുഴപ്പം ഇല്ലല്ലോ

ബുധനാഴ്ച ഞാൻ നോക്കട്ടെ വേറെ വല്ലതും ഇതുണ്ടോ നോക്കട്ടെ ഞാൻ ഡേറ്റ് ഉണ്ടോ നോക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ഞാൻ അങ്ങോട്ട് വിളിക്കാം ഞാൻ അങ്ങോട്ട് വിളിക്കാവേ നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം മിസ്സിനെ ഒരു അര മണിക്കൂറ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം ആ ഈ നമ്പർ തന്നെ അല്ലേ വാട്സപ്പുള്ള നമ്പര് അല്ലേ ആ ഓക്കെ ഓക്കെ